ഹലോ ഞാന് ഇപ്പോഴടുത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു ഓൺലൈനിൽ നിന്ന് ഒരു ഫേസ് ക്രീമായിരുന്നു നല്ല റിവ്യൂസും അതുപോലെ തന്നെ കുറേയാൾക്കാരുടെ റെക്കമെൻറേഷൻസും റിസൾട്സുമൊക്കെ കണ്ടിട്ടാണ് ഞാനത് വാങ്ങിയത് അൺഫോർച്ചുനെറ്റ്ലി എനിക്ക് കിട്ടിയത് ഭയങ്കരം മോശമവസ്ഥയിലായിരുന്നു ലീക്കായിട്ടും പിന്നെ ഒരുമാതിരി ഒരുമാതിരി ഒരു അവസ്ഥയിലായിരുന്നു എനിക്കത് കിട്ടിയത് അപ്പം ഞാനത് പാച്ച് ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോള് എനിക്ക് വലിയ കുഴപ്പമൊന്നുമുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ കയ്യിലൊക്കെ തിണര്ക്കാന് തുടങ്ങി അപ്പം ഞാൻ വെറുതെയൊന്ന് ഡേറ്റ് നോക്കിയതാണ് ഡേറ്റ് കഴിഞ്ഞിട്ട് മാസങ്ങളോളമായിട്ടുണ്ട് അപ്പോള് നിങ്ങള് ഇങ്ങനത്തെ സാധനങ്ങളാണോ വില്ക്കുന്നത് അതുംകൂടി ചോദിക്കാനായിരുന്നു ഞാനിപ്പോള് ഇങ്ങനെ പറയുന്നത് ദയവ് ചെയ്ത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക കസ്റ്റമേഴ്സിന് അറ്റ് ലീസ്റ്റ് ഡേറ്റെങ്കിലും നോക്കി കൊടുക്കുക പിന്നെ ഡേറ്റ് നോക്കി ശരിയായാൽ തന്നെ സേഫ് ഡാറ്റ് പ്രൊഡക്റ്റ് നിങ്ങള് ഉറപ്പുവരുത്തുക ആ പ്രോഡക്റ്റ് സെയിഫാണെന്ന് ഓക്കെ താങ്ക് യൂ